ഹലോ ആ വളപ്പുറത്തെ എ സി സർവീസ് അല്ലേ ആ പിന്നെ ഒരു ഗ്യാസിൻ്റെ ഇതാക്കാൻ ഉണ്ടായിരുന്നു സർവീസ് ചെയ്യാൻ ഉണ്ടായിരുന്നു ആ അത് എന്താണ് കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയില്ല അതാണ് നിങ്ങളെ വിളിച്ചത് ഇപ്പോൾ അത് ആ മൊത്തത്തിൽ ഒരു ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് കൂളിംഗ് ആ ചെറുതായിട്ട് ഒരു പ്രശ്നം ഉണ്ട് ഹൈ ആയിട്ട് ഇട്ടിട്ട് ഒട്ടും വരുന്നില്ല കൂൾ ആയി കിട്ടാൻ അത് ആകുന്നില്ല തുടങ്ങിയിട്ട് ഒരു ആറ് ഏഴ് ദിവസം ആയി തുടങ്ങിയിട്ട് ശരിയാക്കി തരുന്നുണ്ട് അല്ലേ

വാറണ്ടി ആറ് മാസത്തേന് പറഞ്ഞിട്ടുണ്ട് ആ ആ ആ അതെ

ആ ആ

ആ ആ അങ്ങനെ ഉണ്ടല്ലേ അല്ല അത് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് വലിയ കംപ്ലെയിന്റ് വലിയ കംപ്ലെയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പം എന്താണ് ചെയ്യുക അവിടുന്ന്

ആ ആ ആ ഞാനിവിടെ കോട്ടയ്ക്കൽ ആ എന്നാൽ ആയിക്കോട്ടേ ആ ഓക്കെ ഓക്കെ ആ